എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് സന്തോഷമേറിയ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സമയം കാലഘട്ടമായിരുന്നു കൊറോണ കാലമെന്ന് പറയുന്നത് ഞാൻ പത്താങ്ക്ളാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കോറോണക്കാലം വന്നത് പത്താങ്ക്ളാസ്സിൻ്റെ എക്സാം ടൈമിൽ രണ്ട് എക്സാം ബാക്കിയുള്ള ടൈമിലായിരുന്നു ഈ കൊറോണ വന്നത് കുറെ മുൻകരുതലുകളും എല്ലാം സംരക്ഷണവുമെല്ലാം സ്വീകരിച്ച് ഞങ്ങളാ എക്സാം എഴുതി തീർത്തു അത്കഴിഞ്ഞ് ഒരു രണ്ടു മൂന്നു മാസം ഞാൻ എൻ്റെ വീട്ട്കാരൊടപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം ഇരൂപത്തിനാല് മണിക്കൂറും ചിലവഴിച്ചകാലങ്ങളായിരുന്നു അത് എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിളായിട്ടൊള്ള മോമൻറ്റ്സ്സാണ് എൻ്റെ അമ്മ ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഫീൽഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെന്നും ജോലിക്ക് പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാനും അമ്മാമ്മയും കൂടെയായിരുന്നു എല്ലാ പണികളും ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ആയിട്ട് ഒരുപാട് അടുക്കാനും ഒരുപാട് മെമ്മറീസ്സുണ്ടാക്കാനും സാധി സാധിച്ചു ആ ടൈമിൽ തന്നെയാണ് ഞാൻ എൻ്റെ കഴിവുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞതും അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതുമെല്ലാം കൊറോണ എൻ്റെ വീട്ടിൽ എനിക്കും അമ്മാമ്മയ്ക്കും ഒഴിച്ച് ബാക്കി മൂന്ന് പേർക്ക് എൻ്റെ വീട്ടിൽ കൊറോണ പിടിപെട്ടിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മാമ്മയ്ക്കും വന്നില്ല ഞങ്ങൾ കൊ കോറൺടൈൻ ടൈം ഫുള്ള് വീട്ടിൽ തന്നെയായിരുന്നു ഒരിക്കലും പോലും പുറത്തെറങ്ങീട്ടില്ല അമ്മ ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യവകുപ്പിലായതുകൊണ്ട് തന്നെ അമ്മയ്ക്കവിട്ന്ന് കിട്ടി ഞങ്ങൾക്ക് കോവിഡ്നയൻറ്റീൻ വരാണ്ടിരിക്കാനുള്ള വാക്സിനെല്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽപ്പോലും എൻ്റെ അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും കൊ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു സാ ഞങ്ങൾ പുറത്ത് പുറത്ത് പോയി ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ സാധനങ്ങൾ കൊണ്ടത്തരുമ്പോഴും അങ്ങനെ പോയി വരുമ്പോഴും എല്ലാം മാസ്ക് ധരിയ്ക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും അങ്ങനെയെല്ലാ മുൻകരുതല്കളും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു